താങ്കൾ ചെയ്ത യാത്രയിൽ താങ്കൾക്ക് ഏറ്റോം ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു കസിൻ്റെ കല്യാണത്തിന് വേണ്ടി കൊടേക്കനാലിനൊരു ട്രിപ്പ് പോയിരുന്നു നമ്മൾ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ കൊടേക്കനാൽ ലെയിക്കൊക്കെ കണ്ടു നല്ല മനോഹരമായ ലെയിക്കായിരുന്നു ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു ടെർമൽ വ്യൂവേഴ്സ് ഒക്കെ വിൽക്കുന്നത് പിന്നെ നല്ല കോൾഡ് എൻവിയോണ്മെന്റ് ആയിരുന്നു അതുപോലെ നമ്മുടെ വേറെ ഒരു നമ്മുടെ ഗുണാ കേവ് എന്ന് പറഞ്ഞിട്ടുള്ളോരു സ്ഥലത്ത് പോയി അത് നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ഒരു വലിയൊരു മു വലിയൊരു മൌണ്ടെയിനായിരുന്നു അത് അത് നല്ല വ്യൂവായിരുന്നു ആന്ഡ് ഒരു ഒരു ഫിലിമ് അതിനെ ബെയിസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് അതിന് ശേഷമാണ് നമ്മളവിടെ പോയത് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു കാലാവസ്ഥ ലൈറ്റ് റൈനിങ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അത് ക്ലെയിമെറ്റും എല്ലാം നമ്മുടെ കൂളാക്കുന്ന തരത്തിലുള്ളതായിരുന്നു അതായിരുന്നു പോയിട്ടുള്ള ട്രിപ്പ് നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു നമ്മൾ ഫാമിലിയായിട്ടാണ് പോയത് നല്ല നമ്മളൊരു റ്റൂ ത്രീ സ്റ്റാർ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് അവിടത്തെ സർവീസൊക്കെ നല്ലതായിരുന്നു നമ്മൾ അവിടുത്തെ പുതിയ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസായിരുന്നു